ഞാൻ സംസ്ഥാനത്തിന് പുറത്ത് ഒരുപാട് തവണ പോയിട്ടുണ്ട് ഞാൻ കൂടുതലും ഞാൻ വിനോദസഞ്ചാരത്തിനാണ് പോയത് പിന്നെ കർണാടകയിൽ മൂകാംബിക ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട് തിരുപ്പതി തിരുപ്പതി ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട് ഉടുമ്പി അമ്പലത്തിൽ പോയിട്ടുണ്ട് പഴനി പോയിട്ടുണ്ട് പിൻ മണ്ടക്കാട് പോയിട്ടുണ്ട് കന്യാകുമാരി പോയിട്ടുണ്ട് ശുചീന്ദ്രം പോയിട്ടുണ്ട് എല്ലാം ഞാൻ എൻ്റെ മക്കൾ പുറത്ത് താമസിക്കുന്നത് കൊണ്ട് ഞാൻ അവിടെയും കൂടെ കൂടെ ഓരോ ആവശ്യങ്ങൾക്കായിട്ട് ഞാൻ ഒരുപാട് തവണ പോയിട്ടുണ്ട് പിന്നെ വിനോദസഞ്ചാരമായിട്ട് പോവും പോലെ എന്നാൽ എല്ലാ സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് എല്ലായിടത്തും നമ്മൾ കൂടുതലും അമ്പലങ്ങളിലാണ് പോയിട്ടുള്ളത് അമ്പലത്തിൻ്റെ ഒരിത് തീർത്ഥാടനത്തിന് പോകും പോലെ തന്നെ നമ്മൾ അമ്പലങ്ങളിലെല്ലാ കാര്യങ്ങളും പിന്നെ നമ്മൾ പോവുകയും തൊഴുകയും എല്ലാം ചെയ്തിട്ടുണ്ട്